താങ്കൾ പോയ യാത്രയിൽ ഏറ്റവും പ്രിയ്യപ്പെട്ട യാത്രയേതാണ് ഞാനിതുവരെ സഞ്ചരിച്ചതിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് ഞങ്ങളിവിടെ നിന്ന് പഞ്ചാബിന് പോയൊരു യാത്രയാണ് ഏകദേശം എട്ടോളം ദിവസമെടുത്ത് ഞങ്ങളവിടെ ചെല്ലാനായിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ കല്ല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഞ്ചാബിന് യാത്ര പോയത് ഞാനും എൻ്റെ നാല് കസിൻസും ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് എറണാകുളം വരെ ബസ്സിനും അവിടെ നിന്ന് ട്രെയിനിനുമാണ് യാത്ര പോയത് ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം വൈകുന്നേരത്തോടുകൂടിയാണ് ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചത് ട്രെയിനിൽ തന്നെ ഞങ്ങൾ നാല് ദിവസം ചിലവഴിച്ചു അങ്ങോട്ടേക്ക് അത് അവിടെ തന്നെ നമുക്കൊരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൊ ഞങ്ങളുടെ യാത്രയിലുണ്ടായി അതിനാൽ താന്നെ ഞങ്ങൾക്ക് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു അതിനു ശേഷം ഞങ്ങൾ ചെന്നു കല്ല്യാണം കൂടി കല്ല്യാണം കൂടിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഗോൾഡൻ ടെമ്പിള് പോയി പഞ്ചാബിലുള്ളെ ഗോൾഡൻ ടെമ്പിള് കണ്ടു ജാലിയൻ വാലാബാഗ് പോയി അവിടെ പോയി പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി മ്യൂസിയം കണ്ടു മ്യൂസിയങ്ങൾ കണ്ടു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യ ഗേറ്റിൽ പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ട് തീർത്തു അതിനാൽ തന്നെ ഈ യാത്ര ഞങ്ങൾക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു തിരിച്ചും ഞങ്ങൾ ട്രെയിനാണ് യാത്ര തിരിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് ദിവസമെടുത്തു നാട്ടിലെത്താനായിട്ട് ഈ ഒരു ഒമ്പത് ദിവസത്തെ എക്സ്പീരിയൻസ് പറയുന്നത് വളരെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസായിരുന്നു ഞങ്ങൾ നാല് പേർക്കും ഉള്ള ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹിന്ദി ഭാഷ വലിയ രീതിയിലറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരുപാട് ഈ യാത്രയിൽ കഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് ഈ യാത്ര വളരെ മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് അതുപോലെ തന്നെ ഒരുപാടാനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തൊരു യാത്രയായിരുന്നു ഇത്